സംസ്ഥാനത്തിന് പുറത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലെ ഊട്ടി എന്ന പ്രദേശമാണ് പറയാനുള്ളത് എന്താ പറയുക ഒരു നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഊട്ടി എന്ന് പറയണത് എന്താ അവിടെ എന്താ പൊതുവേ ഈ അന്യ നാട്ടുകാരെയൊക്കെ ഒരു ആകർഷിക്കണ രീതിയിലാണ് അവിടത്തൊരു ക്ലൈമറ്റ് ഊട്ടിയെന്ന് കേൾക്കുമ്പോൾതന്നെ ഭയങ്കര തണുപ്പാണ് എന്നുള്ളൊരു ഫീലിങ്ങാണ് അപ്പോൾ ഒരു നല്ല ഡിസംബർ ആ ഒരു ടൈമിലൊക്കെ പോയാൽ നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും പിന്നെ എന്താ നമ്മളവിടെ വലുതായിട്ട് നമ്മള് മഞ്ഞു പൊഴിയണ പോലെ വളരെയധികം എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോയിട്ട് അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല എന്നാലും നോർമലി നമ്മളിവിടെ ഒരുപാട് കാഴ്ചകള് കാണാനുണ്ടാവും അവിടെ പ്രത്യേകം എടുത്ത് പറയാന്ന് പറഞ്ഞിട്ട് അവിടത്തെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ആണ് പറയാനുള്ളത് എന്താ പറയുക അവിടെ ഗാർഡനിങ്ങ് റോസ്പൂ റോസ് പൂ ആണ് അവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് ഞാൻ പോയ ആ ടൈം കേട്ടോ ഗാർഡനിങ്ങിനാണ് അവിടെ കൂടുതൽ ഇംപോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു വ്യൂ പോയിന്റൊക്കെ ഉണ്ടാവും പിന്നെ എന്താ ഒരു തേയില ഫാക്ടറി അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് തേയിലകളുടെ ഒരു സമ്മേളനം തന്നെയാണ് അവിടെ ആ മലനിരകളുടെ അടിയിൽ ഒക്കെ കൂടിയിട്ട് നമുക്കത് കാണാൻ പറ്റും നല്ലൊരു രസമാണ് ട്രാവൽ ചെയ്ത് അങ്ങനെ നമ്മളൊരു മല കയറണ പോലെ നമക്കത് ഫീൽ ചെയ്യും എന്നാലും അവിടെ അടിപൊളിയാണ് ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുന്ത് കാണാനുണ്ട് പക്ഷെ നമ്മള് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഒരു ടൈമെടുത്ത് പോയിട്ട് എഞ്ചോയ് ചെയ്യേണ്ട പ്ലേസ് ആണത് ഊട്ടിയെന്നൊക്കെ പറയണത് ഞങ്ങൾ രാവിലെ പോയി വൈകുന്നേരം വന്നതുകൊണ്ട് അധികം നമുക്കവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാൻ ഉണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ കാണാനും ആസ്വദിക്കാനും അറിയാനും ഒക്കെ ഒരുപാടുണ്ട് എന്തായാലും സംസ്ഥാനത്തിന് പുറത്ത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയണത് ഈ ഊട്ടി തന്നെയാണ്